അതെ അതെ നെയ്ച്ചോറിൽ നെയ്ച്ചോറിൽ നെയ്ച്ചോറിൽ ഇപ്പം നമുക്ക് നാല് ഡിഷ് ഉണ്ട് നാല് ഐറ്റം ഡിഷ് ഉണ്ട് നെയ്ച്ചോറിന്റെ തന്നെ അതിൽ അത് ഒന്നിൽ ബീഫിൽ വരുന്നതാണ് ബീഫ് ഉലർത്തിയതും ബീഫ് ഉലർത്തിയതും നെയ്ച്ചോറും ആ അത് അടിപൊളി കോംബോ ആണത് പിന്നെ ആ സ്പൈസി ആണ് പിന്നെ വരുന്നത് ഫിഷ് അണ്ടൻ ക്ലോസും ഗീ റൈസും അമുർ അമുർ അമുർ അത് എക്സ്പെൻസീവ് ആണ് അത് എക്സ്പെൻസീവ് ആണ് അതായത് ഒരു വലിയ ഫിഷ് ഉണ്ടാവും ഒരു പത്ത് പതിനഞാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും അത് അതെ ആ അതെ അതെ ഒരു വലിയ ഫിഷ്

പിന്നെ വരുന്നത് മട്ടണിലാണ് വരുന്നത് മട്ടൺ പപ്പാസ് ഉണ്ട് പിന്ന മട്ടൺ ജിഞ്ചർ ഉണ്ട് മട്ടൺ ഗ്ളോയ്ഡ് ആയിട്ട് സ്റ്റൂ ഉണ്ട് അതായത് ഗ്രേവി ടൈപ്പ് അതെ അതെ അതെ അതെ അതെ അതെ പിന്നെ വരുന്നത് ചിക്കൻ ആണ് ആ ഉണ്ട് അതാണ് പറഞ്ഞത് പിന്നെ വരുന്നത് ചിക്കനിൽ ചിക്കൻ വരുന്നത് ചിക്കൻ കൊണ്ടാട്ടം വിത്ത് ഗീ റൈസ് അങ്ങനെ ഒരു കോമ്പിനേഷൻ പിന്നെ മീൻസ് നമ്മള താറാവ് ഓ താറാവിൽ വരുന്ന ഐറ്റംസ് താറാവ് റോസ്റ്റും താറാവ് ഡിഫേബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൂടിയാണ് വരുന്നത് ഡിഫേബിൾ ഈ ഡിഫേബിൾ കുറച്ച് എരിവും കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും അത് മക്കൾക്ക് കഴിക്കാൻ പറ്റില്ല മക്കൾക്ക് കഴിക്കാൻ പറ്റുന്നത് റോസ്റ്റ് മക്കൾക്ക് കഴിക്കാൻ പറ്റുന്നത് റോസ്റ്റ് ടൈപ്പ് അതായത് താറാവ് റോസ്റ്റ് അതിൽ എരിവ് അത്ര എരിവ് ഉണ്ടാവില്ല ഇച്ചിരി നോർമൽ എരിവേ ഉണ്ടാവൂ പിന്നെ വരുന്നത് പിന്നെ വരുന്നത് റാബിറ്റ് ഉണ്ട് ഓക്കെ ഓക്കെ

ഓക്കെ

ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ വെൽക്കം വെൽക്കം